ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പത്ത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏഴ് മൂന്ന് രണ്ടായിരം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ച്